ശരിക്കും പറഞ്ഞാൽ മത്സ്യബന്ധനം ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഞാൻ വരുന്നത് കുട്ടനാട് ഏരിയേന്നാണ് അപ്പോഴത്തേക്കും എനിക്ക് അതുകൊണ്ടുതന്നെ ഒത്തിരി വെള്ളവുമായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ അതുകൊണ്ടു തന്നെ എനിക്ക് മത്സ്യബന്ധനം നന്നായിട്ട് അറിയാം ഒറ്റക്ക് മ നമ്മൾ മീന് പിടിക്കുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്താണെങ്കിലും ജസ്റ്റ് ഒന്നു നമ്മുടെ ഇതിനുവേണ്ടി എന്നാൽ ടൈം പാസിനുവേണ്ടി നമ്മള് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മീന് പിടിക്കാനൊക്കെ പോകും ചെറിയ തോട്ടിലാണെങ്കിലും പുഴയിലെ മീന് പിടുത്തമെന്നു പറയുന്നത് നമുക്ക് ഭയങ്കര നൊസ്റ്റാജി തരുന്ന സാധനമാണ് മീന് പിടിക്കാന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടു തന്നെ എനിക്ക് പറയാനുള്ളതെന്നു വെച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മീന് പിടിക്കാന് ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒത്തിരി വയലുകളും പുഴകളും തോടുകളുമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മീന് പിടിക്കാനായിട്ട് പക്ഷേ ഇന്നതിനുള്ള സാദ്ധ്യതകൾ വളരെ ചുരുങ്ങുകയാണ് ചുരുങ്ങിക്കൊണ്ടിരിക്കുവാ കാരണമെന്നു വെച്ചുകഴിഞ്ഞാൽ ഇപ്പം മീന് പിടിക്കാനുള്ള സാദ്ധ്യതകളുണ്ട് പക്ഷെ നല്ല മീനും നല്ല ഫ്രഷ് മീനും ആണെന്നു നമുക്ക് അറിയാന് പറ്റത്തില്ല അപ്പം തോടുകളിൽ നിന്നാണെങ്കിലും പുഴകളിൽ നിന്നാണെങ്കിലും നമ്മളിപ്പോൾ സാധാരണ നാട്ടിന്പുറക്കാരുടെ കാര്യങ്ങള് അറിയാമല്ലോ ഇപ്പോൾ അവർ കുളിക്കുന്നത് ആ കടവത്തു തന്നെയായിരിക്കും വേസ്റ്റുകള് വലിച്ചെറിയുന്നത് ആ കടവിലായിരിക്കും അലക്കുന്നതും ആ കടവിൽത്തന്നെയായിരിക്കും ഇപ്പൊരു ആ ഏരിയയില് കടവ് അല്ലെങ്കിൽ ആ സൈഡ് നമ്മുടെ വീടിനോടു ചേര്ന്ന് ഇപ്പോൾ തോടിന്റെ സൈഡില് ഒരു ഈ ഇതു പോലെ ബാല്ക്കണി പോലെ സെറ്റ് ചെയ്യാറുണ്ടായിരുന്നു വെള്ളം തോ തോടിലോട്ട് ഇറങ്ങാനും പുഴയിലോട്ടിറങ്ങാനും അവിടൊരു കടവ് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്ന ഭാഷ അപ്പിതിലാണെങ്കിലും ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അതെല്ലാം ചെയ്യണം ഈ വെള്ളത്തിലുള്ള മ് മീനുകള്ക്കും മത്സ്യങ്ങള്ക്കുമേ ഇതൊത്തിരി ചേർന്ന അവർക്ക് ഇത് കിട്ടത്തില്ല അവര്ക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ജീവിതത്തെയും അവരുടെ ആ വാസസ്ഥലത്തെയും അവരുടെ ആ എക്കൊ സിസ്റ്റത്തിൽ അവര്ക്കതൊരു ബുദ്ധിമുട്ടായിട്ടു വരാന് സാദ്ധ്യതയുണ്ട് ഇപ്പോഴത്തേക്കു നമുക്കറിയാം ഇപ്പോഴാണേൽ വലിച്ചെറിയാന് ആര്ക്കും ഒന്നും മടിയില്ല ബൈ ആന്ഡ് ത്രോ വാങ്ങിക്കുക എറിയുക എന്ത് സാധനമാണെങ്കിലും അപ്പം പ്ലാസ്റ്റിക് കുറക്കണമെന്നു പറഞ്ഞാൽ പോലും ആള്ക്കാര്ക്കത് കുറക്കാന് അറിയത്തില്ല അപ്പം ഇതൊക്കെ വെള്ളത്തിൽ ചെന്നാലും ത് കുറേനാൾ വെള്ളത്തിൽ പൊങ്ങിയും വെള്ളത്തിൽ കിടക്കും പിന്നെ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് ദ്രവിച്ച് ഇത് വെള്ളത്തിലോട്ട് ചെല്ലാൻ തുടങ്ങും അതവര്ക്ക് ഒത്തിരി ഇതുണ്ടാക്കാറുണ്ട് ഈ വെള്ളമൊക്കെ പൊങ്ങിക്കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ വെള്ളം പൊങ്ങിയ സ്ഥലത്തു നിന്ന് വെള്ളം ഇറങ്ങി പോകുമ്പോഴാണെങ്കിലും കുറേ മാലിന്യങ്ങൾ തോടേരിയകളിലും കടലിലോട്ടൊക്കെ ചെല്ലും ഈ കടലിലൊക്കെ ഈ മാലിന്യങ്ങൾ ചെന്നു മാലിന്യങ്ങള് ചെന്നാലുള്ള കുഴപ്പമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനു ഭയങ്കര ഇതുണ്ടാകും എന്നുവെച്ചുകഴിഞ്ഞാൽ അതിനു നല്ല അതിനുണ്ടായിരുന്ന ആ ഗുണങ്ങളെല്ലാം പോകും തോടുകളിലാണേല് ഈ മാലിന്യം ചെന്നു ഒഴുക്കിനതു വലിയ പ്രശ്നം ഉണ്ടാക്കും നല്ല വെള്ളങ്ങളും നല്ല വെള്ളം വന്നാലേ ഒഴുകി ഇപ്പം നേരത്തേ കിടന്ന വെള്ളം പോയി ഒഴുകി നല്ല നല്ല വെള്ളങ്ങളിങ്ങനെ വെള്ളത്തിനു മുകളിൽക്കൂടി പോയാലെ മീനുകള്ക്കും അതൊരു ഇതാകത്തുള്ളു അവര്ക്കു ഫുഡ് തേടി പോകാനാണെങ്കിലും അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുകയും മത്സ്യബന്ധനത്തിൽ ആശ്രയിച്ചാണ് കുട്ടനാട് ഏരിയയിലുള്ള കുറേ ആള്ക്കാർ തന്നെ നിൽക്കുന്നത് അപ്പം അവര്ക്കതൊരു അസ്വസ്ഥതയുണ്ടാക്കും ഇപ്പം ഇവിടുന്നുള്ള സ്ഥലത്തെ മാലിന്യങ്ങള് തന്നെയാകണമെന്നില്ല പല സ്ഥലത്തെയും മാലിന്യങ്ങളാകാം ഈ മാലിന്യങ്ങളെല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കൂടുമ്പം അത് വലിയൊരു പ്രശ്നത്തിനുള്ള സാദ്ധ്യത ആണ് ഉണ്ടാകുന്നത് അപ്പത്തേനും നമ്മളതിനെ മാക്സിമം മാലിന്യങ്ങള് കുറയ്ക്കുക മത്സ്യബന്ധനങ്ങള് ഇപ്പം ഒരു ചില ജലത്തില് മലിനീകരണം ഉണ്ടാകാന് മെയിനായിട്ടുള്ളത് പ്ലാസ്റ്റിക് തന്നെയാണ് അതാണ് ഏറ്റവും മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സാധനം വേറൊന്നും അത്ര മലിനീകരണം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കാരണം പ്ലാസ്റ്റിക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ ഉപയോഗം കുറഞ്ഞു വരുന്നുണ്ട് കാരണം ഹരിത കര്മ് ഹരിത കര്മ്മ സേന അംഗങ്ങളെന്നു പറഞ്ഞാൽ ആള്ക്കാർ നമ്മുടെ കേരളമൊട്ടാകെ ഇതിന് കുറക്കുന്നുണ്ട് എന്നാലും വേറെ പല മാലിന്യങ്ങളും ഇതിനകത്തുണ്ട് വേറെ പല മാലിന്യങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് നമുക്കതിനെ ഓപ്പണായിട്ട് ഇത് ഇത് മൊത്തത്തോടെ നമുക്ക് ഇതു ചെയ്തു കളയാന് പറ്റത്തില്ല അപ്പം പല മാലിന്യങ്ങള് ഉള്ളതു കൊണ്ട് നമ്മള് ഒത്തിരി ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം മാക്സിമം നമ്മള് മാലിന്യങ്ങള് കുറയ്ക്കുക പിന്നെ നമ്മുടെ ഈ ഇതിന്റെ കാര്യങ്ങളിൽ മത്സ്യബന്ധനത്തിനു കൂടുതൽ സാദ്ധ്യതകള് ഉണ്ടാകാന് ശ്രമിക്കുക ഈ നദികളൊക്കെ മണ്ണിട്ടു മൂടുന്നത് അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അതിനൊന്നും നമ്മളവിടെ തലയിടാതിരിക്കുക മാലിന്യങ്ങള് വലിച്ചെറിയാതിരിക്കുക നദികളും മറ്റു തോടുകളും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങള്ക്കു വേണ്ടിപ്പോലും നമ്മളത് ചെയ്യാതിരിക്കുക അപ്പോഴത്തേക്കും നമുക്ക് കൂടുതല് സാദ്ധ്യതകൾ ഉണ്ടാകും പിന്നെ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ആള്ക്കാര്ക്കാണേൽ ചില സമയം ഇതിപ്പം മീനുകളെ പിടിക്കാന് വേണ്ടി പോയിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ മുട്ട വിരിയേണ്ട മുട്ട ഇടേണ്ട സമയത്തായിരിക്കും മീനിനെ പിടിക്കുക അപ്പം നമുക്ക് എന്തുണ്ട് ബാന് ചെയ്ത് ഇരുത്തും അപ്പോഴത്തേക്കാണേല് അവർ അത് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി മീനുകള് കിട്ടും ഇന്നാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ആള്ക്കാർ ചിലവർ പോകുന്നവരുണ്ട് ഈ മല മഴ കാലാവസ്ഥ മാറുമ്പോഴാണ് ഇതിനു കൂടുതൽ പ്രതികൂലമായിട്ടു മാറുന്നത് മഴയൊക്കെ വന്നുകഴിഞ്ഞാൽ ആള്ക്കാര്ക്കൊട്ടും കടലിലോട്ടും തോട്ടിലോട്ടൊന്നും പോകാന് പറ്റില്ല അവര്ക്കൊത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം കടലിലൊക്കെ പ്രക്ഷോഭങ്ങളുണ്ടാകുമ്പോൾ അവരുടെ ജീവനു തന്നെ ഹാനിയാകും മത്സ്യബന്ധനങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളതിനു കൂടുതൽ ഇതു ചെയ്യും അപ്പം മത്സ്യബന്ധനമെന്നു പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഇന്ന് ഇന്നിപ്പം ഇറച്ചി മീന് എന്നിവയൊക്കെയാണ് ആള്ക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഈ കുട്ടനാട് ഏരിയയിലൊക്കെയാണേൽ ആള്ക്കാര്ക്ക് മത്സ്യത്തിനോടൊക്കെയാണ് താത്പര്യം അപ്പം നമ്മള് ആ ഏരിയ ഒത്തിരി സേവ് ചെയ്യാന് ശ്രമിക്കുക മാലിന്യങ്ങള് കുറേ കുറയ്ക്കുക അപ്പം തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങളും കുറേ കുറഞ്ഞുകിട്ടും അതും കൂടാതെ നമുക്ക് ഒത്തിരി ഇതായിട്ടുള്ള ഏരിയകൾ ബാന് ചെയ്തിട്ടുള്ള എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യരുത് എന്നു പറഞ്ഞിട്ടുള്ള ബാന്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മളത് കുറയ്ക്കുക അപ്പത് എന്താ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് വലിച്ചെറിയാതിരിക്കുക മണ്ണ് ഈ മണ്ണു മാന്തി എടുക്കാമല്ലോ കടലിന്റെ പൊഴിയൊക്കെ കൂട്ടുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ഒത്തിരി പ്രശ്നത്തിനു വഴി ഒരുക്കുന്നുണ്ട് ഓക്കെ